മലയാളത്തിലെ ഭാഷാ ഭേദങ്ങൾ ഇതുവരെ അങ്ങനെ പഠിക്കുകയോ നമ്മളങ്ങനെ ചെയ്തിട്ടില്ല മലയാളം എന്നത് ഒരു മഹത്തായ ഒരു ഭാഷയാണ് മലയാളം ലോകത്തിലെ തന്നെ എല്ലാ രാജ്യങ്ങളിലും മുക്കിലും മൂലയിലും ഇന്ന് മലയാളികളുണ്ട് അവിടെയല്ലാം മലയാളമുണ്ട് മലയാളം അങ്ങനെ ലോകത്തിനു തന്നെ പരിചിതമായ ഒരു ഭാഷയാണ് മലയാളം മലയാളം എന്നൊരു എന്നതൊരു സംസ്ഥാനത്തിൻ്റെ ഭാഷയാണ് എങ്കിൽ കൂടിയും ആ സംസ്ഥാനത്തെ ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളില് ജോലിക്കായിട്ടും മറ്റും കുടിയേറിയിട്ടുണ്ട് അതുകൊണ്ടു തന്നെ മലയാളികളെ ലോകത്തിനു പരിചയമാണ് ഒരുപാട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽന്നുള്ള ആളുകള് മലയാളത്തെ മലയാളക്കരയിലേക്ക് എത്തിയിട്ടുണ്ട് മലയാളത്തിലേക്ക് മലയാള കേരളം എന്നു തന്നെ ഇന്ന് മലയാളികളുടെ ഒരു സ്വന്തം സംസ്ഥാനമാണ് കേരളം കേരളത്തിലേക്ക് ലോകത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിനോദസഞ്ചാരത്തിന് ഉൾപ്പെടെ നിരവധി ആളുകള് നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നുണ്ട് മലയാള ഭാഷ അവർക്കെല്ലാവർക്കും പരിചിതമാണ് പൊതുവേ സംസ്കൃതവുമായിട്ടു ബന്ധപ്പെട്ട ഒരു ഭാഷയാണ് എങ്കിൽ കൂടിയും ഇത് മറ്റുള്ളവർക്ക് പെട്ടെന്നതു പഠിച്ചെടുക്കാന് ഉള്ള ഒരു ബുദ്ധിമുട്ട് മലയാള ഭാഷയ്ക്കുണ്ട് മലയാള ഭാഷ ഒരു മഹത്തരമായ ഒരു ഭാഷയാണ് ഒരു പ്രാചീന ഒരു ഒരു സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഭാഷയാണ് മലയാളം മലയാളം മലയാളത്തിൽത്തന്നെ നിരവധി ഈ ലോകത്തിലെ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ആളുകളെ മലയാളം മലയാളികള് സംഭാവന ചെയ്തിട്ടുണ്ട് കേരളം സംഭാവന ചെയ്തിട്ടുണ്ട് മലയാളത്തിൻ്റെതന്നെ ഒരുപാട് ശശി തരൂർ പോലുള്ള അങ്ങു ലോകപ്രശസ്തരായിട്ടുള്ള ആളുകളൊക്കെ മലയാളികളാണ് അങ്ങനെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് എല്ലാം മലയാളികൾ ഉണ്ട്